മാം എൻ്റെ പേര് അസിതയെന്നാണേ ആ ഓക്കെ ആ പിന്നെ

മാം എന്തൊക്കെയാണ് ഉള്ളത് ഏ ആ അതെ അതെ ആ സ്റ്റേജ് ഡെക്കറേഷനും എല്ലാം ഉണ്ടോ

ആ ആ ആ ആ

മാര്യേജ് സെവൻത്ത് മാർച്ച് ആയിരുന്നു ആ ആ ഇവിടെ ഭാമ ഓഡിറ്റോറിയത്തിൽ വെച്ചാണേ ഭാമ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഭാമ എന്നാണ് പേര് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ വെച്ച് നടത്താനായിരുന്നു ഉം അപ്പം ബ്യൂട്ടിഷ്യൻ്റെ ഒക്കെ ആ സെൻഡ് ചെയ്തേക്കാം ഇത് തന്നെ അല്ലേ വാട്ട്സ്പ്പ് നമ്പർ ആ ഉണ്ട് ഉണ്ട് ആ അതെ തലേ ദിവസം അത് അല്ല അല്ല രണ്ട് ദിവസം മുന്നേ ചെയ്യാനാണേ തലേന്ന് അല്ല ഒരു പാ പാർട്ടി ഉണ്ട് ആ വൈകീട്ടത്തേതിന് ആ ആ വൈകീട്ടത്തേതിന് ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വിത്ത് ഐസ്ക്രീം എന്തെങ്കിലും സ്വീറ്റ്സ് ആ ആ ഡെസേർട്ട് ആ ആ പിന്നെ കേക്ക് കേക്ക് വേണം കേക്ക് ആ കേക്കും കൂടി വേണമായിരുന്നു ഒരു ആ ആ നമ്മൾ അപ്പോൾ എമൗണ്ട് എല്ലാം മാമിന് തന്നാൽ മതിയല്ലോ ആ ഓക്കെ ഓക്കെ ആ മാക്സിമം ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ നോക്കണേ

ആ അതെ അതെ അത് കല്ല്യാണത്തിൻ്റെ അന്ന് ട്രഡീഷണൽ ലുക്ക് കൊടുത്താൽ മതി അന്ന് ഫുൾ തലേന്ന് കുറച്ച് പാർട്ടി വെയ് ലൈറ്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെ ആ ഓക്കെ ഒരു

നമുക്ക് ഒരു മൂന്നൂറ് പേരെ നോക്കാം ആ അത് മതി ഹൽദിക്ക് കുറച്ച് അതും കൂടെ കുറച്ച് മതി കുറച്ച് പേരെ കാണത്തുള്ളൂ അന്നത്തേതിന് ആ ഞാൻ ഒന്ന് ഒന്ന് നോക്കിയിട്ട് പറയാമേ ചെക്ക് ചെയ്തിട്ട് ആ ഫുൾ ഡീറ്റെയിൽസ് അങ്ങോട്ട് അയച്ചുതരാം ഓ അത് വേണ്ട ആ ആ അത് നമുക്ക് നോക്കാമെന്നേ എന്നാൽ അങ്ങനെ ആണെങ്കിൽ ഡ്രസ്സ് ഒക്കെ എടുക്കാനും പിന്നെ ബ്യൂട്ടീഷ്യൻ്റെ ഒക്കെ ചെയ്യാനായിട്ട് എന്നത്തേതിനാണ് വരേണ്ടത് സെവൻത്ത് മാർച്ചിനാണ് മാര്യേജ് ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ വെൽക്കം ഗേൾസ് വേണോ വെൽക്കം ചെയ്യാനായിട്ട് ഗേൾസ് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ മതി മതി ഓക്കെ റേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മാം ഒന്ന് എല്ലാത്തിൻ്റെയും കൂടി ഒന്ന് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എത്ര ആവുമെന്ന് ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കണേ ആ ഓക്കെ ഓക്കെ മാം താങ്ക് യൂ

അന്നേരം ആ അന്നേരം ഞാൻ മാർച്ച് ഒന്നാം തീയതി നേരിട്ട് വരാം ആ ആ ഓക്കെ വെഡ്ഡിംഗ് സാരി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ വേറെ ആ ആ ബാക്കി ബാക്കി എത്രയാണ് നോക്കിയോ ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ ഉം വെഡ്ഡിംഗ് സാരിക്ക് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അതും ഉം ഉം ഉം ആ ഉം അതിൻ്റെ എല്ലാം കൂടി മാർച്ച് ഒന്നാം തീയതി വരുമ്പോഴത്തേനും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഒന്ന് പറഞ്ഞ് തന്നാൽ മതി ആ ഓക്കെ ഓക്കെ ഓക്കെ മാം താങ്ക് യൂ ആ ആ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാം ഓക്കെ മാം താങ്ക് യൂ